ഹലോ അതെ അതെ ഗുഡ്മോർണിംഗ് ഗുഡ്മോർണിംഗ് ആ എവിടെയാണ് പഠിക്കുന്നത് ആ എവിടെയാന്ന് പഠിക്കുന്നത്

ലോണ് എത്ര വേണ്ടിവരും എത്ര വേണ്ടിവരും ലോണ് എയിറ്റിൻ തൗസൻഡ് അല്ലേ ആ ആ ഓക്കേ ഇൻട്രെസ്റ്റ് നയൺ പെർസെൻറ്റ് ആ അതെ അതെ നിങ്ങൾ പാസ്സ് ഇത് അതിൻ്റെന്നെ അക്കൗണ്ട്സ് ലൈഫ് ഉണ്ട് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആകുമ്പഴേക്കും അക്കൗണ്ട് ആക്കേണ്ടി വരും ആ മോളുടെ പേരിൽ ജോയിൻറ്റ് അകൗണ്ട് അമ്മേൻ്റെ മോളേം പേരിൽ ജോയിൻറ്റ് ആക്കേണ്ടത് ആ പിന്നെ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി വരും ആ ആ ആ വേറെ അത് ഡോക്യൂമെൻസ് അങ്ങനെ ആധാർ കാർഡ് രണ്ട് സർട്ടിഫിക്കറ്റ് പിന്നെ ആ കോമൺ പേര് പേര് ഇൻകമോ ഓ ഇൻകംമ് വേണം ആ വേണം വേണം അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് വേണം അപ്പോൾ ആ ആ ഉണ്ടല്ലേ അതെ എപ്പോൾ ആ രാവിലെ പത്ത് മണിന്ന് ഏതു നേരത്തേക്ക് ആ ഉണ്ട് ഉണ്ട് ഓക്കേ എന്നിട്ടേ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് വന്നിട്ട് സംസാരിക്കാം